ഹലോ ആ പോലീസ് സ്റ്റേഷനല്ലേ ആ സാർ ഞാൻ ആ അങ്കമാലീന്നാണ് വിളിക്കുന്നത് പീച്ചാനിക്കാടുന്ന് എൻ്റെ വീടിൻ്റടുത്ത് ഒരു അമ്മച്ചി മാത്രം താമസിക്കുന്നുള്ളൂ അപ്പോൾ അവിടെ ഇന്നലെ രാത്രീലൊരു പത്ത് പവൻ്റെ ആഭരണം കളവ് പോയിട്ടുണ്ട് അപ്പോൾ ആളറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെയാണതറിഞ്ഞത് അപ്പോൾ അറിഞ്ഞതിന് ശേഷം എന്നോടൊന്ന് ആൾക്ക് വിളിക്കാനൊന്നറീല്ല അതോണ്ടെന്നോടൊന്ന് വിളിച്ച് പോലീസ് സ്റ്റേഷൻൽ ഇൻഫോം ചെയ്യാനായിട്ട് പറഞ്ഞു ആ സാറൊന്ന് ഇവിടെ വരെ വരണം സ്ഥലം പീച്ചാനിക്കാടാണ് ഗവൺമെൻറ്റ് യു പി സ്കൂളിൻ്റടുത്തന്നുള്ള തൊട്ടടുത്തുള്ള വീടാണ് അടുത്ത് വീടൊക്കെയുണ്ട് തൊട്ടടുത്തായിട്ടില്ല കുറച്ചപ്പറത്തും ഇപ്പറത്തും അമ്മച്ചീടെ മക്കളൊക്കെ പുറത്താണ് ദൂരെയാണ് അപ്പോൾ അമ്മച്ചീടെ വീട്ടിൽ ആ അമ്മ തന്നെയാണ് താമസിക്കുന്നത് സാർ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ കുറിച്ചൊന്ന് അറിയാണെങ്കിൽ ഇപ്പോൾ വീട് കുത്തി തുറന്നിട്ടാണ് വീടിൻ്റെ ലോക്ക് കുത്തി തുറന്നിട്ടാണ് അമ്മച്ചി രാത്രിയിൽ ഗുളിക കഴിച്ച് കിടക്കണത് കാരണം അറിഞ്ഞിട്ടില്ല സൗണ്ടറിഞ്ഞിട്ടില്ല അപ്പോൾ സാറിവിടെ വരെ വരുവാണെങ്കിൽ നന്നായിരുന്നു ഇൻകേസ് അവിടെ എത്തിക്കണെങ്കിൽ ഞങ്ങളോട്ടോ വിളിച്ചിട്ടിവിടുന്ന് യാത്ര ബുദ്ധിമുട്ടാണവിടെ എത്താനായിട്ടിപ്പോൾ റെയിൽവേ ക്രോസിലെ പ്രശ്നങ്ങളുള്ള കാരണം ഞങ്ങളെത്തുമ്പോൾ വൈകും സാറൊന്ന് ഇല്ല സാർ ഇല്ല സാർ വീട് ലോക്ക് ചെയ്തോളാം ഓക്കെ സാർ ഓക്കെ സാർ ഓക്കെ സാർ താങ്ക് യൂ സാർ